നമുക്കറിയാം നമ്മുടെ ആധുനിക ലോകത്തും മലയാള ഭാഷയ്ക്ക് ഇന്നയിന്ന വെല്ലുവിളികൾ എന്തെല്ലാമാണെന്ന് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ പണ്ടു കാലങ്ങളിൽ മലയാള മലയാളം എന്നു പറയുമ്പോൾ അത് ഭയങ്കര കട്ടി പെട്ടന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ഭാഷയാണെന്നും ആ രീതിയിലന്ന് സംസ്കൃതവും സംസ്കൃതവും വ്യാകരണവുമൊക്കെ കൂടിക്കലർന്ന് മറ്റുള്ളവർക്ക് പെട്ടെന്നൊന്നും മനസ്സിലാകാൻ പറ്റാത്തൊരു ഭാഷ രീതിയായിരുന്നു പണ്ടുകാലത്ത് പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഇപ്പം അങ്ങനെയല്ല ഇപ്പോഴെന്നു വെച്ചാൽ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലുള്ള ഭാഷ പ്രയോഗമാണ് ഇപ്പം നടക്കുന്നത് ഭാഷയ്ക്ക് പല തിരുവുകൾ എല്ലാമുണ്ട് ഹിന്ദി ഹിന്ദി ഇംഗ്ലീഷ് മലയാളം കന്നഡ ഹിന്ദി അങ്ങനെ പല ഭാഷകളും പല ശൈലികളും എല്ലാമുണ്ട് അതൊക്കെ മനസ്സിലാക്കി അതൊക്കെ കണ്ടറിഞ്ഞ് നമ്മൾ ഭാഷയെ ഇതാക്കും നമുക്ക് എവിടെയെങ്കിലും ചെന്നു കഴിയുമ്പോൾ ഭാഷ ഇല്ലാതെ ഇപ്പം വിദേശ രാജ്യങ്ങളിൽ ചെന്നു കഴിയുമ്പോൾ ഇംഗ്ലീഷ് ഭാഷ അറിയാം നമുക്കൊന്നും പറയാനോ അറിയാനോ പറ്റത്തില്ല അതുപോലെതന്നെ ഇപ്പം മലയാളം നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ വന്നുകഴിയുമ്പോൾ മലയാളം ആണ് കൂടുതലും അപ്പം മലയാളം കൂടുതൽ മനസ്സിലാക്കുവാനുള്ള അത് നമുക്ക് അറിഞ്ഞിരിക്കണം പണ്ടു കാലങ്ങളിൽ മലയാളം ഈ കൂട്ടുഭാഷ കൂട്ടക്ഷരം അങ്ങനെ കട്ടി പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ പറ്റാത്തൊരു ഭാഷ രീതിയിലായിരുന്നു പ്രയോഗവുമെല്ലാമായിരുന്നു എല്ലാവർക്കും പെട്ടെന്നൊന്നും അങ്ങനെ മനസ്സിലാവുകയോ പെട്ടന്നൊന്ന് എന്നാ പറയുക മനസ്സിലായി ഗ്രഹിച്ചെടുക്കാനൊന്നും പറ്റത്തില്ലാത്ത രീതിയിലായിരുന്നു ഇപ്പം അതെല്ലാം മാറി ഇപ്പം എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഭാഷാരീതി